എടാ ഞാനൊരു പുതിയ ഫോണ് വാങ്ങി മഞ്ചേരി മൈ ജി ന്നാ വാങ്ങിയത് ഐ ഫോണ് എസ് ബി രണ്ടായിരത്തി ഇരുവത് മോഡല് അതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ക്യാമറയൊക്കെ സൂപ്പര് ക്ലിയറാണ് ക്യാമറയില് നമ്മള് ഫോര് കേ യിൽ വീഡിയോ റെക്കോര്ഡ് ചെയ്യാന് പറ്റും നല്ല ക്ലിയറില് നല്ല ക്ലിയറില് വീഡിയോ റെക്കോര്ഡ് ചെയ്യാന് പറ്റും അപ്പോൾ മറ്റേ ഫോണിനെ അപേക്ഷിച്ച് നല്ല നല്ല ക്ലാരിറ്റിയാണ് ക്യാമറ പിന്നെ എന്താന്ന് വെച്ചാൽ അത് സ്ക്രീനൊക്കെ സ്ക്രീന് നല്ല ക്ലിയറാണ് യു ട്യൂബില് വീഡിയോ കാണുമ്പോളൊക്കെ നല്ല ക്ലിയറില് കാണാന് പറ്റും ഫോര് കേയില് ഫോര് കെ ഇതൊക്കെ കാണാന് പറ്റും നല്ല ക്ലിയറാണ് തിയേറ്ററീല് കാണുന്ന അതേപോലെ കാണാന് പറ്റും പിന്നെ എന്താന്നുവച്ചാല് ചെറിയ ഒതുങ്ങിയ ഒരു ഫോണാണ് പെട്ടെന്ന് ചാര്ജ് കയറും ചാര്ജ് കയറിയാൽ നമുക്ക് പെട്ടെന്ന് ചാര്ജ് കയറും